ഇപ്പോൾ നമ്മുടെ പ്രദേശത്തായിക്കോട്ടെ ഒരുപാട് കലകളുണ്ട് ഗോത്ര കലകളായിക്കോട്ടെ മറ്റുള്ള കലകളായിക്കോട്ടെ ഒരുപാട് കലകളുണ്ട് അവ സംരക്ഷിക്കുന്നതെന്ന് വെച്ചാൽ നം ഓരോ ആഘോഷങ്ങളിലായിരിക്കുമല്ലോ ഓരോ കലാരൂപങ്ങളും നമ്മൾ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ആദിവാസി ഗോത്രങ്ങളിൽ ആയിക്കോട്ടെ അവരുടെ നൃ അവരുടെതായ ചില നൃത്ത രൂപങ്ങളും അതുപോലെ അവരുടേതായ ഗാന ഗാനങ്ങളും ഒക്കെയുണ്ട് അവർ അവരുടെ എന്തെങ്കിലും ഒരു പരിപാടിക്ക് അല്ലെങ്കിൽ അവരുടെ ഗോത്രത്തിലുള്ള കല്യാണങ്ങൾക്കോ കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ അവർ ഒരു ഒരുപാടാൾക്കാർ കൂടിയിട്ട് അവരുടേതായ നൃത്തരൂപമുണ്ട് അതിനെ പണിച്ചിത്തുള്ളൽ എന്നും പറയുന്നത് കേൾക്കാം അപ്പോൾ അതുപോലെയുള്ള ക നൃത്ത രൂപങ്ങളൊക്കെ അരങ്ങേഴ അരങ്ങേറാറുണ്ട് അതുപോലെതന്നെ ഇപ്പോ കാട്ടിൽ താമസിക്കുന്നവർക്കായിക്കോട്ടെ അവർ അവരുടേതായ രീതിയിൽ ഇപ്പോൾ തീയൊക്കെ കത്തിച്ചിട്ട് നിന്ന് നൃത്തങ്ങൾ ചെയ്യാറുണ്ട് പിന്നെ അങ്ങനെ ഓരോ ഗോത്രങ്ങൾക്കും ഓരോ ക നൃത്തരൂപങ്ങളും കലകളും ഒക്കെത്തന്നെ നമ്മൾ ഈ പ്രദേശത്ത് കാണാം